കുക്കിങ്ങ് ചെയ്യുന്നത് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ബിരിയാണീൻ്റെ കാര്യമൊന്നും അങ്ങനെ ഇതുവരെ ഞാന് ചെറുതായിട്ടൊക്കെ നോക്കിന് എങ്കിലും കൂടുതലായിട്ട് അയിമക്ക് ശ്രദ്ധേ കുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല മറ്റുള്ള ഭക്ഷണം പോലെ ബിരിയാണീൻ്റെ മസാല അതിൻ്റെ വേവ് അതിൻ്റെ അരിയില് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതൊക്കെത്തന്നെയാണ് ഇതുവരെ ഇങ്ങനെ ശ്രമിച്ചുനോക്കാത്തതിൻ്റെ കാരണങ്ങള് പിന്നെ മസാല മസാലഉടെ മസാലേൻ്റെ കൂട്ടുകള് എന്തേ ഇപ്പോള് ഇറച്ചി ആണ് ബീഫാണെങ്ങിലും ചിക്കനാണെങ്കിലും അതിൻ്റെ വേവ് അങ്ങനെ ത്ത കാരണങ്ങളാൽ കൊണ്ട് ശ്രമിച്ചിട്ടില്ല മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുവിധമൊക്കെ കുക്ക് ചെയ്യും അത്രേ ബിരിയാണി അത്ര പെർഫ്ക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ഒരു മനോധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെതന്നെ പല ഇതേമാരി അൽഫാം അങ്ങനത്തെ ഇതൊക്കെയുണ്ട് പിന്നെ അതൊക്കെ ശ്രമിച്ചുനോക്കാത്തീന്റെ കാരണം അത്ര അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മസാലക്കൂട്ടുകളും അതും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിത്തോന്നി തോന്നിയതു കൊണ്ടാണ് ശ്രമിച്ചു നോക്കണം